ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിൽ ആണെങ്കിൽ പോലും ഒരുപാട് ഒരുപാടാൾക്കാർ ഒന്നും വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനത്തിനായി പഠനത്തിനായി ഇപ്പോൾ ആയി അവരുടെ ജീവിതം ഒഴിച്ച് വെച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഒരുപാട് ഒരുപാടെന്നല്ല ഒന്നോ രണ്ടോ ആൾക്കാർ ആർക്ക് പുറമേ എല്ലാവരും വിദ്യാഭ്യാസം കിട്ടണം അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയൊരു ജോബ് ലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്താൽ നമ്മൾ വിദ്യ അഭ്യസിക്കുന്നുണ്ട് പിന്നെന്ന് വെച്ചാൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ വിദ്യ വിദ്യാഭ്യാസത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകൾ അത്പോലെ പിന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ പിന്നോക്ക ഇപ്പോൾ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ വി ആൾക്കാർക്ക് ഫ്രീയായിട്ട് വിദ്യ വിദ്യാഭ്യാസം നൽകുക അതുപോലെ വിദ്യാഭ്യാസത്തിനോടൊപ്പം ബുക്സാണെങ്കിലും പിന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ങ്ങളൊക്കെ സൗജന്യമായി നൽകുക അല്ലെങ്കിൽ പഠിച്ച് ഇറങ്ങുമ്പോൾ പൈസ അടക്കാൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പഠിക്കാനായിട്ടുള്ള ഒരു പകുതി പൈസ സ്കോളർഷിപ്പായിട്ട് അവർക്ക് നൽകുക ഇതുപോലുള്ള ഒരുപാട് മെച്ചപ്പെട്ട രീതികൾ ഇന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട് എങ്കിൽ പോലും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് സ്കോൾ ഇപ്പോൾ പുറമേ പഠിക്കൽ ലെണ്ടൻ അതുപോലുള്ള പുറം രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കോളർഷിപ്പും അതുപോലെ ഒരുപാട് അവർക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് സബ്ജെക്റ്റുമുണ്ട് പിന്നെ ജോബ് റിലേറ്റഡായിട്ടുള്ള സബ്ജെക്റ്റൊക്കെ പക്ഷേ ഇന്ത്യയിൽ അതുപോലെ അത്തരം ഒരു രീതിയിൽ അധികം മെച്ചപ്പെട്ടിട്ടില്ല അത് അല്ലെങ്കിൽ അഡ്വാൻസ്ഡായിട്ട് നൽകുന്നില്ല പലരും ഇന്ന് ഇന്ത്യക്ക് പുറത്താണ് പഠിക്കാൻ പോകുന്നത് ഇന്ന് പിന്നെ അതുപോലെ ലെണ്ടൻ ദുബായ് പിന്നെ അതുപോലെ അമേരിക്ക അങ്ങോട്ടൊക്കെയാണ് എല്ലാവരും കൂടുതൽ അഡ്വാൻസ്ഡായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത് അത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പം അമേരിക്കയിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ മുടക്കിയാൽ സ്കോളർഷിപ്പിലൊക്കെ പഠിച്ച് ഇറങ്ങുന്നവർക്ക് പെട്ടന്ന് തന്നെ ജോബ് പുറം രാജ്യങ്ങളിൽ തന്നെ കിട്ടുന്ന് പക്ഷേ ഇന്ത്യയിൽ അത് ഇല്ല അത് ഇന്ന് കണ്ട് വരുന്നില്ല അതൊക്കെയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നേരിടുന്ന വെല്ലുവിളി